ശാരീരികമായും മാനസികമായും ഉള്ള രോഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒന്നു തന്നെയാണ് ചിത്ര രചന നമ്മൾ വാക്കുകളിൽക്കൂടെയും നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത് കഴിയാത്ത പല വികാരങ്ങളും നമുക്ക് ചിത്രം വരയിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയും ഇതിലൂടെ ട്രോമാ ഡിപ്പ്രഷൻ ആൻസൈറ്റി തുടങ്ങിയവയിൽ നിന്ന് നമുക്കൊരൂ ശമനം കിട്ടാൻ വളരേ നല്ലതാണ് ചിത്രരചന അതുപോലെ തന്നെ ശാരീരിക അവ ആസ്വാരസ്യങ്ങളുടെ കാര്യം ആലോചിച്ചാലും ശാരീരികമായ പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് ഒരു അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി എടുക്കാനായിട്ട് വളരെ നല്ലതാണ് ചിത്രരചന അതുപോലെ തന്നെ ഒരൂ കലാകാരനാവാൻ എനിക്ക് ആർജ്ജിക്കേണ്ടിവന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ക്ഷമ ആണ് നമുക്ക് ഒരൂ നല്ല ഒരു പടം വരച്ചെടുക്കാൻ നമുക്ക് വളരെ അധികം ക്ഷമ ആവശ്യം വന്നിരിക്കുന്നു പിന്നേ അച്ചടക്കം അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒരു കലാകാരന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് പിന്നെ നല്ല നല്ല രീതിയിലുള്ള ശ്രദ്ധയും ഓരോ ചെറിയ സൂഷ്മമായ കാര്യങ്ങളേയും നിരീക്ഷിക്കാനുള്ള കഴിവും പിന്നേ അതുപോലെയുള്ള പലകാര്യങ്ങളും ആണ് ഒരു കലാകാരനാവാൻ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് ഞാൻ ആർജിച്ച ഗുണങ്ങൾ